ഓക്കെ ഒരു സ്റ്റുഡൻസിനെ ബേസ് ചെയ്തിട്ട് ഒരു സ്റ്റുഡൻ്റാണെങ്കിൽ എല്ലാ ലാംഗ്വേജും പഠിക്കണം എന്നു നിർബന്ധമില്ല അദ്ദേഹത്തിന് ഇഷ്ടമുള്ള ലാംഗ്വേജെടുത്ത് പഠിക്കാനുള്ള എല്ലാ അവകാശവും ഈ ഇന്ത്യയിൽ തന്നിട്ടുണ്ട് അതുപോലെതന്നെ ഇപ്പോഴൊരു സ്റ്റൂഡൻ്റ് ഒരു കുട്ടി ജനിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മദർ ലാംഗ്വേജായിട്ടുള്ള ലാംഗ്വേജ് അത് ചെറുപ്പം തൊട്ട് ഇരുന്നു പഠിക്കും പിന്നെയതു കഴിഞ്ഞിട്ട് സ്കൂളൊക്കെ പോവുന്ന സമയം അഡീഷണലായിട്ട് ഇംഗ്ലീഷായതുകൊണ്ട് ഹിന്ദി സെക്കൻ്റ് ലാംഗ്വേജായിട്ടവർ പഠിക്കും അതങ്ങനെത്തന്നെ ബേസ് ചെയ്തു അത് ടെൽത്ത് ടെൻത്ത് കഴിയുന്നവരെ ഈ ഒരു ഇതിലായിരിക്കും ആദ്യം മദർ ലാംഗ്വേജ് അതു കഴിഞ്ഞിട്ട് സെക്കൻ്റ് ലാംഗ്വേജ് തേഡ് ലാംഗ്വേജായിട്ട് നമ്മൾ ഇംഗ്ലീഷും അല്ലെങ്കിൽ നമ്മുടെ സ്കൂൾ ഇതിൽ നമ്മൾ ഉറപ്പായിട്ട് പഠിച്ചിരിക്കും അതു കയിഞ്ഞിട്ട് നമ്മൾ ഈ ഒരു മൂന്ന് ലാംഗ്വേജെസ് നമുക്ക് ബേസിക്ക്ലി നമ്മളൊരു സ്റ്റുഡൻ്റായിരിക്കുന്ന സമയം നമ്മളിത് പഠിച്ചു വരും മദർ ലാംഗ്വേജ് മലയാളം ഓർ തമിഴ് അത് ഏതു ലാംഗ്വേജിലായിക്കോട്ടെ ഒരു കുട്ടി ഇന്ത്യയിൽ ജനിക്കുന്ന ഏതെങ്കിലുമൊരു കുട്ടി അല്ലെങ്കിൽ ആ കുട്ടിയുടെ ലാംഗ്വേജ് ശരിക്കും മദർ ലാംഗ്വേജേതോ അതാദ്യം പഠിക്കും അത് അതിൻ്റെ കൂടെ ഇംഗ്ലീഷ് അതുപോലെത്തെന്ന ഒരോരു ലാംഗ്വേജ് പഠിക്കാൻ അതിന് ഇത് ഒരോരാൾ പഠിക്കാനുള്ള ഓരോരാൾ പഠിക്കാനുള്ള ഇത് അവർക്ക് കിട്ടും പഠിക്കാനുള്ള അവസരം ഈ ഇതിലുണ്ട് ആരും നിർബന്ധിക്കുന്നില്ല ഒരാൾ നിർബന്ധിക്കണമോയെന്ന് ഇതിൽ ഇല്ല ഒരു ലാംഗ്വേജ് ഈ ലാംഗ്വേജ് തന്നെ നീ പഠിക്കണം അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഒരു റൂൾസ് ആൻ റെഗുലേഷൻസും ഈ ഇന്ത്യയിലില്ല ഇപ്പോൾ കേരളത്തിൽ ജനിച്ച എനിക്ക് ഞാൻ ആദ്യം പഠിച്ചത് മലയാളം അതു കഴിഞ്ഞിട്ട് എൻ്റെ സെക്കൻ്റ് ലാംഗ്വേജായിട്ട് വന്നത് സെക്കൻ്റ് ലാംഗ്വേജായിട്ടു വന്നത് ഇംഗ്ലീഷ് പിന്നെ തേഡ് ലാംഗ്വേജായിട്ട് എനിക്ക് ഹിന്ദിയോ അല്ലെങ്കിൽ തമിഴോ തെലുങ്കോ എന്തു വേണമെങ്കിലുമെടുത്ത് പഠിക്കാം അതിനായിട്ടുള്ളൊരു ഫ്രീഡം എനിക്കുണ്ട് പിന്നെ ഈ എല്ലാ ലാംഗ്വേജും പഠിക്കുന്നതു കൊണ്ടുള്ളൊരു യൂസ് എന്നു പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ സ്വന്തം നാട്ടിൽത്തന്നെ നിൽക്കണം എന്നില്ല നമ്മുടെ പഠിത്തം കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമുക്കവിടുത്തെ ലാംഗ്വേജ് നമുക്കുറപ്പായിട്ട് പഠിക്കാം അപ്പോൾ അതു പഠിക്കുമ്പോൾ നമ്മളിപ്പോഴൊന്നു തന്നെ ചെറുപ്പം തൊട്ടിരുന്നു നമ്മൾ എല്ലാ ലാംഗ്വേജും പഠിക്കുകയാണെങ്കിൽ നമക്കിങ്ങനത്തെയൊരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾക്കത് യൂസ്ഫുൾ ആയിരിക്കും ഇപ്പോൾ സപ്പോസ് നമ്മളൊരു നമ്മുടെ പഠിത്തം കഴിഞ്ഞു നമ്മൾ ഒന്നുകൂടി പഠിക്കാൻ വേണ്ടി നമ്മൾ പുറത്തോട്ടൊക്കെ പോവുകയാണെങ്കിൽ നമ്മളിവിടെ പഠിച്ച ഇംഗ്ലീഷും അവിടെ പഠിക്കുന്ന ഇംഗ്ലീഷും തമ്മിൽ കുറേ ഡിഫ്രൻസുണ്ടാവും സോ നമ്മളെ അപ്പോൾപ്പോയി അവിടെ പോയിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യുന്നതു പകരം നമുക്ക് ചെറുപ്പം തൊട്ടുതന്നെ കിട്ടുന്ന സമയങ്ങളൊക്ക വെച്ച് ഒരോരു ലാംഗ്വേജായിട്ട് പഠിക്കുകയാണെങ്കിൽ അത് യൂസ്ഫുള്ളാണ് അതുപോലെതന്നെ ഒന്നും പഠിക്കാൻ വേണ്ടി തന്നെ പുറത്ത് പോകണമെന്നൊന്നും ഇല്ല നമ്മൾ ജസ്റ്റൊരു ട്രിപ്പായിട്ടോ അല്ലെങ്കിലൊരു ഐ വിയോ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മളങ്ങനെ പോവുമ്പോൾ നമുക്കവിടുത്തെ ലാംഗ്വേജ് അവിടെ പോയിട്ട് ഈ ഒരു ഒരു വിഷയം ചോദിക്കണം എങ്കിലും നമുക്കവിടുത്തെ ലാംഗ്വേജ് അറിയണം ഇപ്പോൾ ഈ കേരളത്തിൽ ജനിച്ച ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് പുറത്ത് അതായത് മഹാരാഷ്ട്രയോ ഡൽഹിയോ അങ്ങനെ പോവുകയാണെങ്കിൽ എനിക്ക് ബേസിക്കലി ഹിന്ദി അറിയണം അപ്പോൾ ഹിന്ദി ഞാൻ ചെറുപ്പം തൊട്ടു പഠിക്കുന്നതുകൊണ്ട് എനിക്കൊരു കാര്യം ചോദിക്കാനും ചോദിക്കുന്ന ആൻസറിനു മറുപടി പറയാനും എനിക്കത് അറിയാം സോ ലൈക്ക് ഇതുപോലെതന്നെ പുറത്തോട്ട് രാജ്യങ്ങളിലൊക്കെ പോവുമ്പോൾ പുറത്ത് രാജ്യങ്ങളിലൊക്കെ പോവുമ്പോൾ പിന്നെ റഷ്യയ്ക്ക് പോയാൽ അവിടുത്തെ ലാംഗ്വേജ് എനിക്ക് പഠിക്കാൻ ഇപ്പോൾ ഞാൻ പുറത്തുപോയി കയിഞ്ഞാൽ അതിൻ്റെ ലാംഗ്വേജ് ഇങ്ങനെ കുറേ ലാംഗ്വേജ് പഠിക്കുന്നതുകൊണ്ട് ഒരു നമ്മൾക്കൊരു പുതു സ്കില്ല് അതായത് നമ്മൾക്കൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അതുപോലെതന്നെ നമുക്ക് എല്ലാ കാര്യം അബ്സോർവ് ചെയ്യാനും ഉള്ളൊരു ടാലൻ്റ് നമ്മൾക്ക് കിട്ടും ഒരു ലാംഗ്വേജ് പഠിക്കുന്നതുകൊണ്ട് സോ ഈ ഒരു ലാംഗ്വേജ് മാത്രം പഠിക്കണം എന്ന് കംപൽസറി ആർക്കും ഇല്ല സോ മേയ് ബി എല്ലാ ലാംഗ്വേജ് പഠിക്കും ഒരാളെക്കൊണ്ട് ഒരു നാലഞ്ച് ലാംഗ്വേജ് പഠിക്കാൻ പറ്റുമെങ്കിൽ ഉറപ്പായിട്ട് പഠിക്കണം അത് ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽ ചെറുപ്പത്തിൽത്തന്നെ പഠിക്കുന്നത് നല്ലതായിരിക്കും സൊ ലൈക് ബി നമുക്ക് പഠിക്കണം തോന്നുമ്പോഴേ നമുക്ക് പഠിക്കാം ഇപ്പോൾത്തന്നെ കുറേ ടെക്നോളജിയൊക്കെ ഉണ്ട് സോഷ്യൽ മീഡിയാസുണ്ട് ആ അതുപോലെതന്നെ ബുക്സുണ്ട് കമ്മ്യൂണിക്കേഷൻ ക്ലാസ്സുണ്ട് ഹാ പിന്നെ അതുപോലെതന്നെ ലേണിംഗ് ആപ്പ്സുണ്ട് ഇങ്ങനെ കുറേയൊക്കെയുണ്ട് സോ സോ മാക്സിമം ഒരു ലാംഗ്വേജ് പഠിക്കണമെങ്കിൽ നമ്മൾ കുറേ അഫേട്ട് എടുക്കണം ചെറുപ്പം തൊട്ടുതന്നെ നമുക്കാണെങ്കിൽ ഓക്കെ ബട്ട് ഇപ്പോഴൊരു മേയ് ബി ഒരു ട്വൻ്റി ട്വൻ്റി ടു ഏജൊക്കെ ആവുന്നതു കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കണമെങ്കിൽ കുറേ നമ്മൾ സ്ട്രഗിള് ചെയ്യേണ്ടി വരും അതുപോലെതന്നെ ബേസിക്ക് തൊട്ടു പഠിക്കണം കുറേ ഹാഡ് വർക്ക് ചെയ്യണം ഒരിക്കലും ഒരു സ്റ്റൂഡൻ്റ് ഒരു ലാംഗ്വേജിൽ തന്നെ പഠിക്കണമെന്നു പറഞ്ഞാൽ നിർബന്ധിക്കാൻ ആർക്കും പറ്റില്ല എത്ര ലാംഗ്വേജ് വേണമെങ്കിലും ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിനി അല്ലെങ്കിൽ വിദ്യാർത്ഥിക്ക് പഠിക്കാം